കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് എല്ലാ ചെടികൾക്കും അതിജീവിക്കാൻ സാധിക്കില്ല ആപ്പിൾ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ എന്നിവയൊന്നും കേരളത്തിൽ പെട്ടന്നൊന്നും വളരാൻ സാധ്യതയില്ലാത്ത ചെടികളാണ് കടുത്ത വേനലിലും തണുപ്പത്തും നമ്മൾ ചെടികളെ നെറ്റ് ഉപയോഗിച്ച് സംരക്ഷിക്കുന്നു കീടങ്ങളിൽ നിന്നും അകറ്റുന്നു